ആ ക്രിസ്ത്യൻ കോളേജിൻ്റ ഓഫീസ് അല്ലെ ഓക്കെ എൻ്റെ പേര് ജിതിൻന്ന് ആണെ ഞാൻ ഇവിടെ കോഴിക്കോട് എ എസ്ഐ ആയിട്ട് ചാർജ് എടുക്കാൻ വന്നതാണ് പുതിയത് ആയിട്ട് തിരുവനന്തപുരത്തിന്ന് ട്രാൻസ്ഫർ ആയി വന്നതാണ് ഓക്കെ അപ്പം എന്റെ മോന് അവിടെ കോളേജിൽ കോളേജ് അല്ല സ്കൂളിൽ ഒരു അഡ്മിഷൻ വേണം കോളേജ് കം സ്കൂൾ ആണല്ലൊ അത് ഇത് നമുക്ക് സ്കൂളിൽ ഒരു അഡ്മിഷന് വേണ്ടീട്ട് ആണ് എയിറ്റ്ത്ത് സ്റ്റാൻഡേർഡ് എയിറ്റ്ത്തിലേക്ക് കറൻറ്റ്ലി സെവൻത്തിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് എയിറ്റ്ത്തിൽ ജോയിൻ ചെയ്തത് ആയിരുന്നു അവിടെ അന്നേരം ആണ് എനിക്ക് ഈ ട്രാൻസ്ഫർ ഒക്കെ വന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടീട്ട് ആയിരുന്നു ഈ റീസ് ഓക്കെ ആ ഓക്കേ അഡീഷണൽ ഈ ഈ ഫിഫ്റ്റി തൗസൻഡിൽ നമുക്ക് യൂണിഫോമും കാര്യങ്ങൾ എല്ലാം ആഡ് ആണോ ഓക്കെ അപ്പം ഞാൻ ഓക്കെ ഈ ഫിഫ്റ്റി തൗസൻഡീന്ന് ഉള്ളത് നമ്മൾ വൺ ടൈം പേയ്മെൻറ്റ് ആണോ ഓക്കെ അത് വൺ ടൈം പേയ്മെൻറ്റ് ആയിട്ട് ചെയ്യണ്ടല്ലൊ മന്ത്ലി എടുത്താൽ മതി ഓക്കെ ഓക്കെ ഓക്കെ അപ്പം എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത് അഡ്മിഷന് വേണ്ടീട്ട് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മാത്രം മതി

ആ ഞാൻ വരും വരും

ഇപ്പം ഓൾറെഡി ക്ലാസ്സ് തുടങ്ങീട്ടില്ലെ ഞാൻ ഓക്കെ ഞാൻ ഇപ്പം കറൻറ്റ്ലി ട്രിവാൻഡ്രത്ത് ആണ് ഉള്ളത് നാളെ ഇവിടുന്ന് പുറപ്പെടൂള്ളൂ അപ്പം മറ്റന്നാൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ശനിയാഴ്ച വർക്കിംഗ് ആണോ ഓക്കെ അപ്പം ശനിയാഴ്ച വരാം അത് ആയിരിക്കും കുറച്ചും കൂടെ സൗകര്യം വെള്ളിയാഴ്ച വന്ന് ജോയിൻ ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട് ശനിയാഴ്ച മോർണിംഗ് അങ്ങോട്ട് വരാം ഞാൻ വിളിച്ചിട്ട് വരാം ഓക്കെ ഞാൻ വിളിച്ചിട്ട് വരാം ഓക്കെ താങ്ക് യൂ ശരി ഓക്കെ ബൈ